എഴുത്തിനെക്കുറിച്ച് പറയുമ്പം തന്നെ നമുക്ക് എഴുത്താകുന്നത് എന്താണ് ഒരു പേന വെച്ച് പേപ്പറിലെഴുതുമ്പോഴാണത് എഴുത്താകുന്നത് മറിച്ചതൊരു ലാപ്പ് ടോപ്പിൽ ചെയ്യുമ്പോഴത് എഴുത്തല്ലത് ടൈപ്പിംഗാണ് ഞാനെന്നും എഴുത്തിൻ്റെ കാര്യത്തിൽ പേനയും പേപ്പറും ഉപയോഗിക്കാനാണ് ആഗ്രഹിക്കുന്നത് കാരണം അതു തന്നെയാണ് പരമ്പരാഗതമായിട്ടുള്ളതും ശക്തമായിട്ടുള്ളതും അതായത് നമുക്കൊന്നു കൂടി ഫ്ലുവൻറ്റായിട്ട് പെട്ടെന്നു കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം നമ്മൾ പഴേ ആൾക്കാരാവോണ്ടായിരിക്കാം അങ്ങനെ ചിന്തിക്കുന്നത് എന്നാലും ഇപ്പോഴത്തെ പുതിയ തലമുറകളൊക്കെ ഇത് യൂസ് ചെയ്യുന്നത് ലാപ്പ് ടോപ്പിലും മൊബൈലിലൊക്കെയാണ് ടൈപ്പ് ചെയ്യുന്നത് എന്താ ഒരു ഇതിനൊരു മെച്ചങ്ങളെന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചിന്താഗതികളെ എപ്പോഴാണ് നമുക്ക് ഉണ്ടാകുന്നത് ആ സമയം തന്നെ നമുക്ക് നമ്മളുടെ അവൈലബിലിറ്റി ഏറ്റവും കൂടുതൽ പേനയും പേപ്പറിനേക്കാളും നമുക്ക് ഫോണായിരിക്കും കാരണം നമ്മളുടെ കയ്യിലെപ്പോഴും ഫോണുണ്ടാകും അതുകൊണ്ടു തന്നെ ചിന്താഗതികളെപ്പോൾ മാറുന്നോ അതിനനുസരിച്ച് നമുക്കെന്തു ചെയ്യാം അപ്പം തന്നത് കുറിച്ച് വെക്കാനും ഒക്കെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണീ പേന ഉപയോഗിക്കുന്നത് പക്ഷെ ഇന്നത്തെക്കാലത്തീ പേനയും പേപ്പറൊക്കെ ഉപയോഗിച്ചില്ലേല് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ തലമുറ ഉപയോഗിച്ച് വരുന്നതും കണ്ട് വരുന്നതും പുതിയ ടെക്നോളജീസാണ് പഴ ടെക്നോളജീസ് ആർക്കും തന്നെ വേണ്ട പിന്നെ പേപ്പറിലെഴുതി കഴിഞ്ഞാലത് മിസ്സാകാം അത് നനയാം അത് കേടു വരാം എന്നാലീ മൊബൈലിലൊക്കെ എഴുതണത് അതിനുള്ളൊരു വാലിഡിറ്റിയെന്നൊക്കെ പറയണത് ഭയങ്കരമാണത് അല്ലെങ്കിലത് സൂക്ഷിക്കനുള്ളൊക്കെ എളുപ്പമാന്ന് പറയണത് ഭയങ്കരമാണ് പിന്നെ ഇന്നത്തെ തലമുറയിലൊരുപാട് ആൾക്കാർ ഈ ഒരു എന്താ മൊബൈലാണുപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ലാപ്പ് ടോപ്പ് ഉപയോഗിച്ചിട്ടു തന്നെയാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണത് ആൾക്കാർക്ക് എന്താണോ അതിൽ സ്യൂട്ടബിളായിട്ടുള്ള അല്ലെങ്കിൽ ഈസി മെത്തേഡ് അതുപയോഗിച്ച് ചെയ്യുക